എൻ്റെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോണാണ് അപ്പോൾ മൊബൈൽ ഫോണിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ബിഗ് ബില്ല്യൺ ഡേ ഒക്കെ വന്നപ്പോൾ ഓഫറിനെടുത്ത ഒരു ഫോണായിരുന്നു എന്റേത് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി അപ്പോൾ ഇറങ്ങിയ ടൈമിൽ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെ ആയിരുന്നു അത് അത്യാവശ്യം എന്താ പറയുക ബെറ്ററായിട്ടൊള്ള ഒരു ക്വാളിറ്റി ബേസിൽ ആയിക്കോട്ടെ ക്യാമറ ആയാൽ ആയാലും ബിൽഡ് ക്വാളിറ്റി എല്ലാം അത്യാവശ്യം നല്ലൊരു ഫോൺ ആയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത് അത്യാവശ്യം ചാർജിങ്ങ് കപ്പാസിറ്റി പിന്നെ പ്രൊസസ്സറ് എല്ലാം അത്യാവശ്യം നല്ല പ്രൊസസ്സിങ്ങ് എല്ലാം നല്ലൊരു ഫോണായിരുന്നു അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് റേറ്റ് കുറഞ്ഞ ടൈമിലാണ് ഈ ഫോണെടുത്തത് അപ്പോൾ യൂസ് ചെയ്ത ടൈമില് അത്യാവശ്യം കൂടുതൽ ഏറ്റവും കൂടുതല് സെയിലായി പോയൊരു ഫോണ് തന്നെ ആയിരുന്നു ഇത് എൻ്റെ ഫോണ് നോട്ട് ഫോറാണ് റെഡ്മീടെ നോട്ട് ഫോർ എന്ന് പറയുന്ന ഫോണാണ് ഇപ്പോൾ ഓൾമോസ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു എന്താ പറയുക നല്ലൊരു ഫോണ് തന്നെയാണ് ഡ്യുവൽ സിം എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം ബാട്ടറി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഫോണ് തന്നെയാണ് എൻ്റെ കൈയിലുള്ളത് എന്ന് ആണ് എൻ്റെ ഒരു നിഗമനം